ഓ നമ്മുടെ അടുത്തുള്ള ആരാധനയാലയങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ട് കാരണം പല രീതിയിലുള്ള മതസ്ഥരായിട്ടുള്ള ആൾക്കാർ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നും പല സ്ഥലങ്ങൾ ഇപ്പോൾ ശ്രീലങ്കയിൽ നിന്ന് തന്നെ ആൾക്കാർ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിട്ട് കുടിയേറി താമസിച്ച ആൾക്കാരൊക്കെയുണ്ട് പിന്നെ പാകിസ്ഥാനിൽ നിന്ന് വന്നവരൊക്കെയുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരുണ്ട് ഇപ്പോൾ മുസ്ലീംസുണ്ട് ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യൻസുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാർ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഒരുപാട് അമ്പലങ്ങളും പള്ളികളും പിന്നെ മുസ്ലിം പള്ളീസ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മളെ ഇന്ത്യയിൽ ഒരുപാട് ഉണ്ട് അപ്പം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏകദേശം എല്ലാ പള്ളികളും സന്ദർശിച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് എല്ലാ ഏകദേശം എല്ലാ പള്ളികളിലും നമുക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതുണ്ട് ചില അമ്പലങ്ങളിൽ മാത്രം നമുക്ക് കയറാൻ അങ്ങനെ സാധിക്കാറില്ല അവിടെ അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒക്കെ ആയിട്ടുണ്ടങ്കിൽ അവരെ ചിലപ്പോൾ അവർ കയറ്റില്ല മുണ്ടുടുത്ത് കഴിഞ്ഞാലേ കയറ്റുകയുള്ളൂ ഷർട്ട് ഊരണം അങ്ങനത്തെ പല രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ടനങ്ങളൊക്കെയാണ് അവിടെ ആ ആചരിക്കാറുള്ളത് പിന്നെ മുസ്ലിംസ് ആണെങ്കിൽ അവർ സ്ത്രീകളെ പള്ളിയിലേക്ക് കയറ്റില്ല അങ്ങനെ പല രീതിയിലുള്ള ആചാരങ്ങളാണ് അവർ കൊണ്ട് നടക്കുന്നത്